എൻ്റെ കയ്യിൽ പ്രത്യേകതരം ക്യാമറകളൊന്നുമില്ല ഞാൻ സാധാരണ എൻ്റെ നോർമലി എൻ്റെ കയ്യിൽ ഇരിക്കുന്ന റെഡ്മിയുടെ ഫോണിനകത്താണ് ഫോട്ടോസ് എടുക്കാറുള്ളത് പിന്നെ ഐഫോണിലെ ക്യാമറ നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ട് പിന്നെ വീഡിയോസ് ഒക്കെ എടുക്കാൻന്നേരം സാംസൺ അൾട്രാ പ്രൊ മാക്സ് അത് നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ട് നല്ല ക്ലാരിറ്റി ഒക്കെ നൽകുന്നു നല്ല ക്യാമറകളാണ് സാംസങ്ങിനകത്ത് ഉള്ളത് നമ്മുടെ ഇപ്പം ഒരു ഗ്രിഡ് വ്യൂ ഒക്കെ തന്ന് എല്ലാതിനകത്തും ഉണ്ടെങ്കിലും ഗ്രിഡ് വ്യൂ ഒക്കെ തന്ന് നല്ല രീതിയിൽ ഫോട്ടോ എടുക്കാൻ അറിയാത്തവരെപ്പോലും ഫോട്ടോ എടുക്കാൻ സഹായിക്കുന്നൊരു ക്യാമറയാണ് സാംസങ്ങിൻ്റേത് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെയെന്താണ് പല പല ഫിൽറ്റേഴ്സ് നമുക്കതിൽ അവൈലബിളാണ് അത് പ്രൊ പോർട്രൈയിറ്റ് ആയാലും സ്ലോ മോഷൻസ് ആയാലും ആയാലും എന്തായാലും നല്ല രീതിയിൽ തന്നെ അത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ അതിൻ്റെ ആങ്കിൾസൊക്കെ നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ട് പല ഏത് ആങ്കിളിൽ വേണമെങ്കിലും നമുക്ക് നല്ല രീതിയിൽ ഫോട്ടോ എടുക്കാൻ സാധിക്കുന്നുണ്ട് പിന്നെ ചില ക്യാമറാസ് ക്യാമറാസിലൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കളറ് മാറാറുണ്ട് എന്നുവച്ചാൽ നാച്ചുറൽ കളറിൽ നിന്ന് മാറി ഒരു ഫിൽട്ടറൊക്കെ നമ്മൾ ഫിൽറ്ററിൽ ഇടാതെ തന്നെ നോർമലി കിടക്കുമ്പോൾ പോലും ഫിൽറ്ററ് ഇട്ടത് പോലെയൊക്കെ തോന്നത്തക്ക രീതിയിൽ ഫോട്ടോസ് വരുന്ന ക്യാമറാസ് ഞാൻ കണ്ടിട്ടുണ്ട് ബട്ട് സംസങ്ങിൻ്റെ ഫോണിലെ ക്യാമറയിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ഫോട്ടോ എടുക്കാൻ പറ്റുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ദെൻ പിന്നെ അതിനകത്ത് അഡ്ജസ്സ്മെൻ്റ്സ് ചെയ്യാൻ കംഫോർട്ടബിളാണ് ഇപ്പം ഫോട്ടോ എടുത്ത് നല്ല രീതിയിൽ പരിചയം ഇല്ലാത്തവർക്ക് പോലും എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനും ലൈറ്റ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാനും എല്ലാം നമുക്ക് സഹായകമാകുന്നതായിട്ട് തോന്നാറുണ്ട് പിന്നെ അതിൻ്റെ ഫീച്ചേസ് ഫോണിലുള്ള ഫീച്ചേസ് നമുക്ക് ഈ ഈസ്ലി മനസ്സിലാക്കാൻ പറ്റുന്നത് പോലെയും തോന്നാറുണ്ട് പിന്നെ ഹൈ ക്വാളിറ്റി ക്യാമറയാണ് പറയാൻ പറയാതിരിക്കാൻ പറ്റത്തില്ല നല്ല നല്ല ഹൈ ക്വാളിറ്റി പിക്സൽസ് ഉള്ള നല്ല പിക്സിൽസ് ഉള്ള ക്യാമറാസ് ആണ് പിന്നെ നമുക്ക് മഴയത്ത് മഴയൊക്കെ ആണെങ്കിലും നല്ല ആ ഒരു ക്ലാരിറ്റിയോട് കൂടി തന്നാൽ നാച്ചുറൽ ഇമേജ് നമുക്ക് ഇതിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് എടുക്കാൻ സാധിക്കാറുണ്ട് സോ ഐ പ്രിഫർ സാംസങ്ങിലെ ക്യാമറ ഫോർ മൈ ഫോട്ടോഷൂട്ട്